മലയാള ഭാഷയുടെ ചരിത്രത്തിൽ മറ്റു ഭാഷകൾ അതുപോലെ മറ്റു സംസ്കാരങ്ങൾ അത് എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് പറയുമ്പോൾ നാം മലയാള ഭാഷയുടെ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് എത്തി നോക്കൽ അനിവാര്യമാണ് നമ്മുടെ കേരളീയ സമൂഹത്തിന് വളരെ പഴക്കമുള്ള ചരിത്രുണ്ട് ആ ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ അതിലൂടെ നമുക്ക് എങ്ങനെയാണ് മറ്റു ഭാഷകളും മറ്റു സംസ്കാരങ്ങളും കേരളീയ അല്ലെങ്കിൽ മലയാള ഭാഷയെ സ്വാധീനിച്ചതെന്ന് നമുക്ക് നിസംശയം പറയാൻ സാധിക്കും നമ്മുടെ കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മലയാള ഭാഷ സംസ്കാരം എന്നിവ എല്ലാം മറ്റ് രാജ്യത്തിലെ അല്ലെങ്കിൽ മറ്റു ഭാഷ സംസ്കാരമുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ ബഹുമാനിച്ചും കൈ കോർത്തും മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെല്ലാം ഇതിന് തിൻ്റെ പുരോഗതിക്കും ഇതിൻ്റെ ഭാവി ഓർത്തുകൊണ്ടും പല കാര്യങ്ങളും ചെയ്തു വെച്ചവരാണ് മലയാള ഭാഷ അല്ലെങ്കിൽ മലയാളികൾ അവർ അവരെ സ്വീകരിച്ചത് നല്ല നല്ല രീതിയിലുള്ള സ്വീകരണത്തോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ മലയാളികളും മറ്റു ഭാഷ രീതി സ്വീകരിച്ചു നല്ല രീതിയിൽ സ്വാഹാർദ്ദത്തോടെയാണ് മുന്നോട്ട് പോയിരുന്നത് അതിലൂടെ തന്നെ മലയാളികൾ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരങ്ങളും അവരുടെ ചിന്തകളെല്ലാം കൈമാറിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അതവരിൽ നല്ല രീതിയിൽ തന്നെ ആഴത്തിൽ സ്വാധീനിച്ചുവെന്ന് നമുക്ക് നിസംശയം പറയാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു മലയാള അല്ലെങ്കിൽ കേരളീയ സംസ്കാരത്തിൽ അവരുടെതായ പാശ്ചാത്യ രാജ്യങ്ങളടേതായ പല സംസ്കാരങ്ങളും കേരളീയ സംസ്കാരങ്ങളുമായി കൂടിച്ചേർന്നിരിക്കുന്നു